തികച്ചും ഒരു ഗ്രാമപ്രദേശമാണ് ഞങ്ങളുടേത് ഇവിടെയുള്ളവർ എല്ലാവരും തന്നെ കൂടുതൽ ആളുകളും ക്രിസ്ത്യാനികളാണ് അവർ ക്രിസ്തു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് സജീവമായി ദൈവത്തിനുവേണ്ടി സേവനം അർപ്പിക്കുവാൻ തയ്യാറായി മുന്നോട്ടു വന്നിട്ടുള്ള ആളുകളാണ് തിരി ഒക്കെ വിൽക്കുന്ന തിരി പൂക്ക പൂക്കൾ മറ്റുമൊക്കെ കച്ചവടം ചെയ്യുന്ന നിരവധി ആളുകൾ ഇവിടെയുണ്ട് അവർ പള്ളികളിലേക്ക് ഞായറാഴ്ച്ച അലങ്കരിക്കുന്നതിനു വേണ്ടി തിരികളും പൂക്കളുമെല്ലാം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാതൃവേദിയുടെ ആളുകൾ അവർ പള്ളിയിൽ അത് അലങ്കരിച്ചു വയ്ക്കും വളരെ മിതമായ ലാഭേച്ഛ കൂടാതെയുള്ള ഒരു പ്രവർത്തനമാണ് അവർ കാഴ്ച്ച വച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ സേവനം വളരെയധികം ശ്ലാഘനീയമാണ് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന് ദൈവം നൂറു മേനിയും അമ്പതു മേനിയും നൂറു മേനിയും ഫലം തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവരുടെ വീടുകളിൽ സമ്പന്നരായ ആളുകളൊന്നുമല്ല വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളാണെങ്കിലും അവർ ദൈവത്തിനുവേണ്ടി അവരുടെ ജീവിതം തന്നെ മാറ്റിവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെക്കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ വ്യാവസായിക രംഗത്ത് വളരെയധികം ആളുകൾ ലാഭേച്ഛ കൂടാതെ തങ്ങളുടെ പ്രവർത്തനം വഴിയായിട്ട് ജീവിത നവീകരണം സാധ്യമാക്കിയെടുക്കുന്നതിന് അവരോടുള്ള ദൈവത്തിലുള്ള വിശ്വാസം അർപ്പിച്ച് കൂടുതൽ ഒന്നുകൂടെ പ്രോജുലമാക്കുന്നതിന് ഉതകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അനുദിനം കാഴ്ച്ചവച്ച് കൊണ്ടാണ് ഇരിക്കുന്നത് അവരുടെ സേവനങ്ങളെ മുക്തഘണ്ഡം പ്രശംസിക്കേണ്ടിയിരിക്കുന്നു നെടുംകുന്നത്തും അതിൻ്റെ പ്രാന്ത മൈലാടിയിലും അതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം ആളുകൾ നെടുംകുന്നം പള്ളിക്കും അതുപോലെ തന്നെ മൈലാടിയിലേ വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സേവന തല്പരരും അർപ്പണബോധവുമുള്ള വളരെയധികം വൈദികർ നയിക്കപ്പെടുന്ന ഒരു പള്ളിയുണ്ട് സെൻ്റ് ആൻ്റണീസ് ചർച്ച് അവിടെയും എല്ലാവരും അതുപോലെ തന്നെ കൊന്ത കാശിരൂപം എന്നിവയെല്ലാം ഇവർ മിതമായ നിരക്കിൽ കൊടുത്തുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് അത് വാങ്ങിച്ചെടുക്കത്തക്ക വിധത്തിലുള്ള ഒരു സംവിധാനം ചെയ്തു തരുന്നുണ്ട് അവരുടെ സേവനങ്ങളെ ഞങ്ങൾ അങ്ങേയറ്റം പ്രകീർത്തിക്കുന്നു